എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗ്രന്ഥ ശാലകളിൽ ക്ലബ്ബിൻ്റെ വക ഒരുപാട് പരിപാടികൾ വയ്ക്കാറുണ്ട് അവ ആ സമയത്ത് മതം ഇന്ന മതം എന്നില്ലാതെ എല്ലാ മതക്കാരും ഒത്തു ചേർന്ന് ആഘോഷിക്കുന്ന ഒരു ഒരു പരിപാടിയാണിത് അപ്പോൾ അതു ഞാൻ ഒരു ഇതെന്ന നിലയിൽ ഞാനും ഒരുപാട് സന്തോഷിക്കാറുണ്ട് അവർ നടത്തുന്ന പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ട് അന്നു നമ്മളൊരു മതം ഇന്ന മതമെന്നില്ലാതെ എല്ലാ മതക്കാരും തുല്യമായിട്ട് അവിടെ വന്നതിന് സഹകരിക്കാറുണ്ട് അപ്പം അത് അതിലുള്ള എല്ലാ അതിൽ ഞാനും സഹകരിക്കും അതുപോലെ തന്നെ അതിലുള്ള പരിപാടികളിൽ കൂടും അവർ അതിനുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്